ഈ സ്റ്റാമ്പുകൾ ഗാന്ധിജിയുടെ മദർ തെരേസയുടെ അല്ല വലിയ വലിയ മഹാന്മാരുടെ വലിയ സേ വിശുദ്ധരുടെ ഇങ്ങനെയായിട്ടുള്ള സ്റ്റാമ്പുകൾ അഞ്ച് രൂപയുടെ രണ്ട് രൂപയുടെ വലിയ വിലയുടെ സ്റ്റാമ്പുകൾ വലിയത് മേടിക്കുകയില്ല അത് ഇങ്ങനെ മേടിച്ച് ആദ്യം ബുക്കിലിങ്ങനെ ഒട്ടിച്ചു വെക്കും എന്നിട്ടതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കവറിട്ട് പൊതിയും എന്നിട്ടതിങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് കുറേ ദിവസമാകുമ്പോൾ എടുത്തു നോക്കും അവരുടെ ആ മുഖം കാണാൻ ആ നാളുകൾ കഴിയുമ്പോൾ ചിലപ്പമത് പൊടിയാകും അതെല്ലാം തൂത്ത് തുടച്ച് നല്ല ഭംഗിയായിട്ട് വീണ്ടും വെക്കും പിന്നെ അതു നല്ല ചെറിയ പെട്ടിക്കകത്ത് അതു പറിച്ച് വീണ്ടും ചെറിയ പെട്ടിക്കകത്താക്കും എന്നിട്ടത് നല്ല പ്ലാസ്റ്റിക് കൊടം കൊണ്ടു മൂടി പൊതിഞ്ഞു വെക്കും അത് പൊടിയൊന്നും പറ്റാതെ അങ്ങനെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെക്കും പിന്നെ നാണയങ്ങൾ പഴയ ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ അതൊക്കെ എടുത്തിങ്ങനെ ഓരോ ഉവ്വ് ക ഇത് പ്ലാസ്റ്റിക് കോടും കൊണ്ട് ഒരു ബോക്സ് പോലെയുണ്ടാക്കിയിട്ട് അതിനകത്തിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു വെക്കും അങ്ങനെ ഒട്ടിച്ച് വെക്കുമ്പോൾ അത് നമുക്ക് കാണുകയും ചെയ്യാം പൊടിയോ അല്ലെങ്കിലഴുക്കൊന്നും പറ്റാതെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അ അങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് അതിപ്പോഴും ഓരാ നാണയങ്ങൾ ആ പിന്നേ പണ്ടുണ്ട് അൽഫോൻസാമ്മയുടെ നാണയം തലയുണ്ടായിരുന്നു ഗാന്ധിജിയുടെ തലയുണ്ടായിരുന്നത് പിന്നെ മദർ തെരേസയുടെ അങ്ങനെയുള്ള നാണയങ്ങൾ സൂക്ഷിച്ച് ഒരു അല്ലെങ്കിലൊരു ചില്ല് കുപ്പിക്കകത്ത് ഇട്ടു വെക്കും ചില്ല് കുപ്പിയിലിട്ട് വെച്ച് സൂഷിച്ച് അതു നല്ല വൃത്തിയായിട്ട് പ്ലാസ്റ്റിക്ക് ഓരോന്നിനോരോന്നിനും പ്ലാസ്റ്റിക്കിട്ട് മൂടി അങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കുമ്പോൾ നമുക്കത് നശിച്ചു പോകാതെ എപ്പം വേണമെങ്കിലും എടുത്തു കാണുകയും ഇത് ഓരോ വർഷവും അല്ലെങ്കിലോരോ കാലങ്ങളും കഴിയുമ്പോഴും ഓരോ തരത്തിലുള്ള നാണയങ്ങളിതിത്ര ഈ വർഷത്തെയാണ് ഇതിന്ന വർഷത്തെയാണെന്നു നമുക്ക് പറയാനും അതു കാണാനും നമുക്ക് സാധിക്കും പക്ഷേ നശിപ്പിച്ചു കളഞ്ഞാൽ ആ അതായാൽ നമ്മുടെ മക്കൾക്കെല്ലാം നമ്മൾ പുതിയ തലമുറകൾക്കതു പറഞ്ഞു കൊടുക്കാൻ അതില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഇല്ലാണ്ട് വരുമ്പോൾ ആ സാധനം നമുക്ക് നശിച്ചു പോയെന്നു കാണാൻ പറ്റില്ല അതു കൊണ്ട് ഞാനാ പ്ലാസ്റ്റിക് കൂടിനകത്ത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിട്ട് മൂടി മൂടി അത് സൂക്ഷിച്ചതിൻ്റെ പൊടിയെല്ലാം മാറ്റി അതു തുരുമ്പ് പിടിക്കുന്നതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പൗഡറൊക്കെ ഇട്ടു കൊടുത്ത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെച്ച് എടുത്തെടുത്തെടുത്തിടക്കിടക്ക് നോക്കി സന്തോഷം കാണും